സാങ്കേതിക വിദ്യ നമ്മളുടെ യാത്രയിൽ സ സഹായിക്കണത് പ്രധാനമായിട്ട് ഫോണ് വാഹനം അതൊക്കെ തന്നെയാണ് നമുക്ക് ഒരു സ്ഥലത്തേക്ക് പോവണന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഒന്നും ഇല്ലെങ്കിൽ ഒരു ടൂവീലർണ്ടായാലെന്നെ നമുക്ക് അങ്ങട്ട് പോവാ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏത് സ്ഥലത്തേക്കാ പോവണ്ട ബുക്കിംഗ് കാര്യങ്ങൾ അതൊക്കെ ഫോണിൽ ചെയ്യാം ബുക്കിംഗ് ചെയ്യാം പിന്നെ ഇനി ഇപ്പോൾ അവിടെ പോയാൽ സ്ഥലം ഇതൊക്കെ അറിയില്ലെങ്കിൽ നമുക്ക് ഫോണിലെ ലൊക്കേഷൻ ആപ്പൊക്കെ ഉണ്ടല്ലോ ആ ആപ്പ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് സ്ഥലം അറിയാം ഇനി ഭാഷ അറീല്ലെങ്കിൽ ചില വാക്കുകൾ അതിൻ്റെ അർത്ഥം നമുക്കറിയില്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെ ട്രാൻസ്ലേഷൻ ആപ്പുകളൊക്കെ ഉണ്ട് ആ വാക്ക് ആ അത് നമുക്ക് ഫോണിൽ അടിച്ച് കൊടുത്താൽ അതിൻ്റെ അർത്ഥം കാര്യങ്ങളും നമുക്ക് മനസ്സിലാവും ആ സാങ്കേതിക വിദ്യ ഉള്ളത് കൊണ്ട് നമുക്ക് വളരെ ഉപ ഉപകാരം ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ ഒരു സ്ഥലത്ത് പോയി അവിടെ ഉള്ള ആൾക്കാരോട് ചോദിച്ച് അതിൻ്റെ ശരിയായ രീതിയിലാണോ അല്ലയോ ഒന്നും നമുക്ക് വ്യക്തം അല്ല ഒരാൾ നമ്മളെ സഹായിക്കുമ്പോൾ അയാൾ നമ്മളെ പറ്റിക്ക ആണോ ശരിയായ ആ അത് തന്നെയാണാൾ പറയുന്നത് എന്ന് നമുക്കറീല്ല പക്ഷേ ഫോണും കാര്യങ്ങളും അത് ഒരിക്കലും നമ്മളെ തെറ്റ് തെറ്റായ രീതീൽ നമുക്ക് പോണ്ട സ്ഥിതി ഉണ്ടാവൂല്ല